ഈ ലോകത്ത് ഒരുപാട് ഒരുപാട് എഴുത്തുകാരന്മാരും വന്നിട്ടുണ്ട് ഒരുപാട് എഴുത്തുകളും വന്നിട്ടുണ്ട് ഒരുപാട് ഫിക്ഷൻസ് ഒരുപാട് ചിന്തകളിൽ നിന്നും മാത്രം എഴുതി കൂട്ടിയിട്ടുള്ള തുന്നി പിടിപ്പിച്ചിട്ടുള്ളതായിട്ട് ഒരുപാട്

ചിന്തകളിൽ നിന്ന് എന്ന് പറയുമ്പോൾ അവരുടെ ഇമാജിനേഷനിൽ മാത്രം അതു ഉണ്ടാവുകയുള്ളു സത്യം ഒരിക്കലും അതായിരിക്കുകയില്ല അങ്ങനെ സത്യങ്ങൾ മാത്രമില്ലാതെ വെറും ഫിക്ഷൻസായിട്ട് വെറും ഇമാജിനേഷൻ മാത്രമായിട്ടുള്ള ഒരു എഴുത്ത് അത് ആയിരിക്കില്ല എൻ്റെ എഴുത്ത് എന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്ര വാർത്ത എഴുതുമ്പോൾ സത്യം പറഞ്ഞാൽ പത്രങ്ങൾ എഴുതേണ്ടത് സത്യമാണ് പക്ഷേ സത്യം എഴുതാൻ മടിക്കുന്ന പത്രങ്ങൾ ഉണ്ട് മാധ്യമങ്ങൾ ഉണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു വാർത്ത എഴുതുമ്പോൾ ആ വാർത്ത തികച്ചും സത്യമായിരിക്കണം സത്യം മാത്രമേ ഞാൻ എഴുതുന്ന വാർത്തയിൽ വരാൻ പറ്റുകയുള്ളൂ ഞാൻ എഴുതുന്ന വാർത്ത വെറും സത്യം മാത്രമായിരിക്കണമെന്ന് ഉള്ള ഒരു തീർച്ചയാണ് എന്നിൽ ഉള്ളത് അതുപോലെ ഒരുപാട് ഒരുപാട് സത്യങ്ങളായ നമ്മുടെ മുന്നിൽ കണ്ടിട്ടുള്ളതായിട്ടുള്ള പല ജീവിതങ്ങൾ ആ ജീവിതങ്ങൾ കഥകളാക്കുക അത് അല്ലെങ്കിൽ നോവലുകളാക്കുക അത് അല്ലെങ്കിൽ സിനിമയാക്കുക തിരക്കഥയാക്കുക വെറും സത്യങ്ങൾ മാത്രം നമ്മൾ എഴുതുമ്പോൾ അത് അംഗീകരിക്കാൻ ജനങ്ങൾക്ക് ഉത്സാഹം കൂടും എന്ന് പറയുമ്പോ ചിന്തയിൽ ഇപ്പോ ഇംഗ്ലീഷ് പടങ്ങളിലും ബുക്കുകളിലൊക്കെ കാണുന്നത് പോലെ പറന്നടിക്കുന്ന ഹീറോസും അത് അല്ലെങ്കിൽ പക പറന്നടിക്കുന്ന വില്ലന്മാരെയും കാണാൻ പറ്റും പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല അത് അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ കാണുമ്പോൾ അതിൽ ഇരുപതും ഒൻപതും പേരെ അടിക്കുന്ന സാധാ ഒരു ഹീറോ വരും

ഞാൻ എഴുതുന്ന കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലുകളാണെങ്കിലും അതിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഇതാണ് ഞാൻ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ എൻ്റെ എഴുത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഓക്കെ താങ്ക്യൂ